ഹലോ ചേട്ടാ ഞാൻ നേരത്തെ ചേട്ടൻറ്റെ വണ്ടീല് ട്രാവല് ചെയ്യുന്ന ആളാണ് ചേട്ടൻ ഇവിടെ എന്നെ വിട്ട് പോകുമ്പോഴ് പോയി കഴിഞ്ഞ് കുറച്ച് നേരായി നോക്കിയപ്പോഴാണ് എൻ്റെ പേഴ്സ് ചേട്ടൻറ്റെ വണ്ടീല് വെച്ചൊന്ന് മിസ്സായിട്ടുണ്ട് അപ്പോൾ അത് തിരിച്ചെത്തിക്കാൻ എന്താണ് മാർഗം വണ്ടീലുണ്ടോന്നൊന്ന് ചെക്ക് ചെയ്യണം ബാക്ക് സീറ്റിലുണ്ടോന്നൊന്ന് ചെക്ക് ചെയ്യണെ ചേട്ടൻറെ വണ്ടിയിൽ നിന്ന് പാലക്കാട്ന്ന് വടക്കാഞ്ചേരീന്ന് യാത്ര ചെയ്തായിരുന്നു ചേട്ടനിപ്പോൾ എന്നെ വടക്കാഞ്ചേരിന്നു ഡ്രോപ്പ് ചെയ്തു തിരിച്ചു പോയി പോയി കഴിഞ്ഞിട്ടാണ് ഞാൻ ചെക്ക് ചെയ്തത് അപ്പം അത് വണ്ടീന്ന് മിസ്സായി അതെനിക്ക് തിരിച്ചെത്തിക്കാൻ എന്താ ഒരു മാർഗം ചേട്ടനിങ്ങോട്ട് എങ്ങനെയെങ്കിലും എത്തിക്കാൻ പറ്റുമോ അതോ ഞാൻ ചേട്ടൻ്റെ ലൊക്കേഷനിലക്ക് വരണോ പേഴ്സിലാണെൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് കാർഡെല്ലാം അപ്പൊ എനിക്കത് ആവിശ്യമാണ് ചേട്ടന് എന്താ ചെയ്യേണ്ട ചേട്ടന് ചേട്ടൻ്റെ ലൊക്കേഷൻ പറഞ്ഞു തന്നുന്നു വെച്ച ഫ്രണ്ട്സ് വഴി എങ്ങനെങ്കിലും എത്താൻ നോക്കാം അല്ലെങ്കിൽ ഫ്രണ്ട്സിനാരെ കൊണ്ടെങ്കിലും അത് കളക്ട് ചെയ്യാൻ നോക്കാം ഓക്കേ ചേട്ടാ ചേട്ടൻ നോക്കിയിട്ട് വിളിക്ക്